മനുഷ്യ ജീവിതത്തിൽ സം ബൈക്കിംഗ് എങ്ങനെയായിരിക്കും ബൈക്ക് വാ ഇരുചക്ര വാഹനമോടിക്കുന്നതാണ് ഇരുചക്രവാഹനം ഓടിക്കുന്നത് ഒരു ഒരു ഒരു സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് വെച്ചാല് അതിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം നമ്മൾ ഒരു ദൂ ദീര്ഘ ദൂര യാത്ര പോകുകയാണെങ്കില് ബൈക്ക് ടു ഇരുചക്രവാഹനത്തില് പോകുകയാണെങ്കില് നമുക്ക് അതായത് സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിക്കാം എല്ലാം കാണാം വ്യക്തമായിട്ട് വ്യക്തമായിട്ട് കാണാന് പറ്റും നമുക്കാസ്വദിച്ച് യാത്ര ചെയ്യാന് പറ്റും അതില് തന്നെ നമ്മുടെ ദീര്ഘയാത്ര ദീര്ഘ ദൂരയാത്ര ചെയ്യുമ്പോള് അതായത് ഇന്ത്യമൊട്ടാകെ യാത്ര ചെയ്യണമെങ്കില് പല സംസ്ഥാനങ്ങള് പല സംസ്ഥാനങ്ങളിലും പലഭാഷ പല സംസ്കാരം പല ഭൂപ്രദേശം ഓരോ ഭാഗത്തു നിന്നും ഓരോ വിധമാണ് ഓരോ വിധമാണ് ഭക്ഷണം അവിടുത്തെ സംസ്കാരം വേറെയാണ് ഭൂപ്രദേശം വേറെയാണ് നമുക്കതൊക്കെ കാണാന് പറ്റും ആസ്വദിക്കാന് പറ്റും എല്ലാം പറ്റും അതാണ് ഈ ബൈക്കിംഗിനുള്ള ഒരു പ്രത്യേകത ബൈക്കീ പോകുന്നതാണ് എനിക്ക് വളരെ ഇഷ്ടം അതുകൊണ്ട് ഒരിക്കലും ഞാന് ബൈക്ക് യാത്ര ഒഴിവാക്കാതിരി ഒഴിവാക്കില്ല ഒഴിവാക്കാന് താത്പര്യപ്പെടുന്ന വ്യക്തിയല്ല